മലയാളഭാഷ എന്നു പറയുന്നത് തന്നെ എത്ര മനോഹരമാണ് ഇപ്പം മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് ചില അക്ഷരങ്ങൾ ചിലപ്പോൾ സംസാരിക്കുമ്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പം എഴുതാനാണെങ്കിൽ മെയിനായിട്ട് യാ എന്ന അക്ഷരം എനിക്ക് പണ്ട് വലിയ പാടായിരുന്നു കാരണം ചിലരൊക്കെ ഈ രണ്ടെഴുതുന്നത് കണ്ടിട്ടില്ലേ ആ അതുപോലെയൊക്കെ ആയി പോകുമായിരുന്നു എന്തോ ഒരു ഫിനിഷിങ്ങില്ലായിരുന്നു പിന്നെ പിന്നെ കാലക്രമേണ അത് ശരിയായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ പറയുമ്പം നമ്മൾ ആദ്യമായിട്ട് ആ എഴുതാൻ പെട്ട പാടും കൂടി ഓർക്കണം അന്ന് അംഗൻവാടി ടീച്ചറിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തല്ല് കിട്ടിയവരായിരിക്കും നമ്മളെല്ലാം ഇപ്പം അക്ഷരങ്ങളൊക്കെ പല പല സ്റ്റൈലിൽ എഴുതുന്നതൊക്കെ കാണാം ആ അപ്പം ഇപ്പോഴാണെങ്കിൽ ഈ പറയുംപോലെ ചിലർ സം ചിലർ സംസാരിക്കുമ്പോൾ ഷായ്ക്ക് പകരം സായൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ചില കടുകട്ടി വാക്കുകൾ വരുമ്പോൾ തപ്പലൊക്കെ ഉണ്ടാകും അത്രയേയുള്ളൂ